വലിയ പ്രേക്ഷകർ വൃത്തത്തെ ആകർഷിക്കുന്ന കേരളത്തിലെ പ്രധാന സംഗീത നൃത്തോത്സവങ്ങൾ അല്ലെങ്കിൽ പരിപാടികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യത്തിൽ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഏതൊരു മലയാളിക്കും ഇത്തരമൊരു ചോദ്യം കയ്യിൽ കിട്ടിയാൽ ഓ മോ മനസ്സിൽ ഓർമ്മ വരുന്നത് തൃശ്ശൂർ പൂരത്തെക്കുറിച്ചാണ് വലിയ ഒരു വിഭാഗം ജനസമൂഹത്തെ ഒരു മൈതാനിയിൽ കൊണ്ടുവന്നെത്തിച്ച് നെറ്റിപ്പട്ടവും കുടയും ചൂടി നിൽക്കുന്ന ആനകളുടെ മുമ്പിലേക്ക് ചെണ്ടമേളത്തിൻ്റെ ശബ്ദം ആസ്വദിക്കാനായി വരുന്ന പൂരം പൂരം ആവാഹിച്ചെടുക്കുവാൻ അങ്ങനെ അങ്ങനെ തന്നെയത് പറയണം ആവാഹിച്ചെടുക്കുവാൻ ഒട്ടേറെ ജനങ്ങൾ വരാറുണ്ട് അന്ന് തൃശ്ശൂർ പൂരം പിന്നെ ഉത്രാളിക്കാവ് പൂരം ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാല സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് സ്ത്രീകളുടെ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല പിന്നെ അതുപോലെതന്നെ വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം തെയ്യങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം പ്രധാനപ്പെട്ട ഒരു ആത്മീയ കേന്ദ്രം കൂടിയാണ് വളരെയധികം ജനങ്ങൾ അവിടെ വരാറുണ്ട് തെയ്യം കാണാറുണ്ട്